ഓരോ പെയിൻറ്റിങ്ങും ഓരോ അനുഭവമാണ് നമുക്ക് പങ്കു വെക്കുന്നത് ഞാൻ വരച്ചതിൽ ഏറ്റവും വെല്ലുവിളി നിറഞ്ഞൊരു പെയിൻറ്റിങ്ങെന്നു പറയുന്നത് കടലിൽ നിന്നു വരുന്ന സൂര്യനെ കണ്ട് നിൽക്കുന്ന കുട്ടിയെയാണ് കാരണം നാം എല്ലാവരും ചെറുപ്പം മുതൽ വരച്ചു പഠിച്ച ഒരു ചിത്രമാണത് പക്ഷെ എന്നാലും ആ സൂര്യനെ കാണുന്ന കുട്ടിക്കു തോന്നണം തൻ്റെ ജീവിതം അതുപോലെ തന്നെ മനോഹരവും ബുദ്ധിമുട്ട് നിറഞ്ഞതുമാണെന്നുള്ള ഓരോ അറിവും വേണം ഓരോരുത്തരെയും കാണുമ്പോൾ നാം വര പെയിൻറ്റ് ചെയ്യുമ്പോൾ മറ്റുള്ളവരുടെ മനസ്സിലാക്കാൻ നാം ശ്രമിക്കണം നാം കാണുന്ന നമ്മുടെ ചുറ്റും നടക്കുന്നതു കാണുന്നത് നാം വരക്കുമെങ്കിലും നാം വരക്കുന്നത് മറ്റുള്ളവരിലേക്ക് എത്തുകയും അവർക്കതു മനസ്സിലാകുകയും ചെയ്യണം നാം വരച്ചത് എന്താണെന്ന് എന്നാലാണ് നാം ഏറ്റവും സന്തോഷം നമ്മൾ വരച്ചത് മറ്റുള്ളവർ പോസിറ്റീവായിട്ടു പറയുന്നതു കേൾക്കുമ്പോഴാണ് നമ്മുടെ വരക്ക് ഇത്രയും അർത്ഥവും പ്രാധാന്യം ഉണ്ട് എന്നു ഞാൻ മനസ്സിലാക്കുന്നത് വരയെല്ലാം ഓരോ അനുഭവങ്ങളാണ് ഓരോ വരയ്ക്കും നാം ഓരോ കഷ്ടപ്പാടാണ് ഓരോ കാഴ്ചകളെ കണ്ടതിനു ശേഷമാണ് നാം വരയ്ക്കുന്നത് ആ കാഴ്ചകൾ തന്നെ ഓരോ വെല്ലുവിളികളാണ് വെല്ലുവിളികൾ നിറഞ്ഞ വരയും കാഴ്ചകളാണ് തന്നെ നാം വലിയ വലിയ രാജ്യങ്ങളിൽ ചെല്ലുമ്പോൾ വര ഒരു കലയായിട്ടു കൂട്ടുന്നതാണ് അതുപോലെ തന്നെ വരയെ നാം സ്നേഹിക്കണം വരയെ നാം ബഹുമാനിക്കണം വരയ്ക്കുന്ന ഓരോ കലാകാരന്മാരെയും നാം സ്നേഹിക്കണം ഓരോ വരയിലും പല പല അനുഭവങ്ങളാണ് ഓരോ വരക്കാർക്കും അതൊരു പുതിയ ഓരോ വരയും ഓരോ അനുഭവമാണ് അതു നമുക്കൊന്നും പറയാനില്ല ഓരോ വരയും അവർ തന്നെയാണ് സ്വയം തീരുമാനിക്കുന്നത് വരയെ ചിന്തിപ്പിക്കാനും വികസിപ്പിക്കാനും വരയ്ക്കുന്ന ആൾക്കെ കഴിയുള്ളു അതിൻ്റെ മറ്റൊരർത്ഥം കണ്ടുപിടിക്കാൻ അത് നോ പുറ പുറം ലോകം നിന്നു കാണുന്നൊരാൾക്കെ അതു സാധിക്കൂ